ഹലോ അതേ ഇത് ആര് വിളിക്കുന്നത് ആ പച്ചക്കറി എല്ലാം ഉണ്ട് ആ പച്ചക്കറി ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പോഴത്തെ ആ ആ നിങ്ങൾക്ക് എന്തെല്ലാം ഐറ്റമ് വേണമെന്ന് നിങ്ങൾ പറയൂ ഞാൻ ഇപ്പം എത്ര മണിക്ക് വൈകുന്നേരത്തേക്കാണോ പരിപാടി എപ്പോൾ രാത്രിയിലാണോ ആ ആയി അത് നിങ്ങൾ പറഞ്ഞോ ഞാൻ വൈകുന്നേരം ഷോപ്പിൻ്റെ ആൾക്കാർ വന്ന് പണിക്കാർ ബന്നപ്പൊ കൊടുത്തയക്കാം കേട്ടോ സ്കൂട്ടിയിൽ കൊടുത്ത് അയക്കാം ആ എന്തെല്ലാമാണ് വേണ്ടതെന്ന് പറഞ്ഞോ കേട്ടോ ആ ആ ആ

ആ പേന ആ ആ ആ ആ സാമ്പാർ ആ ആ വറവിന് ഉണ്ട് കോവക്ക ഉണ്ട് പയറും ഉണ്ട് ഏതാണ് വറവിന് പയറാവും അല്ലെ ആ പയർ

അതെയോ അത് സാരമില്ല ഇപ്പം നമ്മൾ അറിയുന്ന ആളല്ലെ അത്രല്ലെ കുറച്ച് ദൂരമല്ലെ ഉള്ളു ഞാൻ വൈകുന്നേരം എത്തിക്കാം ഏ കേട്ടോ കുറേ ആളെ പരിവപാടി ആ ആ ആ ആ ഉം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആൾക്കാർ ആൾക്കാർ കുറേ ഉണ്ട് ഗെസ്റ്റ് കുറേ ഉണ്ട് അതെയോ ഉ ഉം ആ ആ ആ

ഓക്കെ ഓക്കെ ആ ഇപ്പോൾ അപ്പോൾ ഞാൻ അയക്കാം കേട്ടോ ആ ശരി ഓക്കെ ഓക്കെ ഓക്കെ